നമ്മളിപ്പോൾ ഒരു നമ്മടെ ഗാർഡനിലിപ്പോൾ ഒരു ചെടിയിനെ വളർത്താ അല്ലെങ്കി എന്താ പറയുക വളർത്തുമ്പോൾ നമ്മളൊരൂ കുറേ അധികം ഇപ്പോ പച്ചക്കറികളാണെങ്കിലും പൂക്കളാണെങ്കിലും പല രീതിയിലുള്ള ചെടികള് വളർത്തുന്നതാണ് നമുക്ക് എന്തുകൊണ്ടും ലാഭം അതായത് ഇപ്പോൾ നമ്മള് പച്ചക്കറി നടാ നടാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള പച്ചക്കറികളും കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നടുന്നതാണ് നമുക്ക് ഏറ്റവും ലാഭമായിട്ട് ഉണ്ടാവുക പെട്ടന്ന് മഴ കൂടാ അല്ലെങ്കി കാറ്റ് കൂടാ അല്ലെങ്കി വെയില് കൂടാ വെയില് കൂടുതലായിട്ട് മഴ കമ്മിയാകുക അങ്ങനെന്തെങ്കിലും പ്രശ്നം വന്ന് കഴിഞ്ഞാൽ ഓരോ ചെടികൾക്കും ഓരോ രീതിയിലുള്ള സിറ്റുവേഷൻ അവശ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ഒന്നില് നഷ്ടം വന്നാലും മറ്റേതില് കോംപീറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മള് ഈ എന്താ പറയുക പയറും വെണ്ട അങ്ങനത്തെ സാധാനങ്ങളൊക്കെ വെള്ളം കൂടുതൽ വേണം എന്നാൽ വെയിലും വേണം അപ്പോൾ നമ്മള് കൃത്യമായിട്ട് ഉള്ള രാവിലെയും വൈകുന്നേരവും നനച്ച് കൃത്യമായിട്ടുള്ള വെയിലും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് വളരും ഇപ്പോൾ മഴ കൂടുതലാണെന്നെച്ചാൽ എല്ലാം കഴിഞ്ഞുപോകും അതെ മറിചിട്ടിപ്പോൽ നമ്മടെ ഈ എന്താപറയാ മത്തൻ കുമ്പളം അങ്ങനത്തെ ചെടികളൊക്കേ പറയുമ്പോൾ അത് മഴയുണ്ടെങ്കിലും വെയില് എത്ര കിട്ടീലെങ്കിലും മഴ വെള്ളം നന്നായി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ വളരാൻ പറ്റും അപ്പോൾ ആ സമയത്ത് ഇത് രണ്ടും ഒരുമിച്ച് വളർത്തുമ്പോൾ നമുക്ക് ഇപ്പോൾ മറ്റേ പയറ് ചെടി പോയാലും കുറച്ചധികം മത്തനിലൂടെ നമുക്കത് നമ്മടെ എന്താ പറയുക നഷ്ടത്തിനെ നികത്താൻ പറ്റും അപ്പോൾ അങ്ങനെ മൊത്തം ഒരു എല്ലാം കുടീട്ടുള്ള ഒരു റൊട്ടേഷൻ പോലെത്തൊര് കൃഷി രീതി നമ്മള് ചെയ്യുന്ന സമയത്ത് അധികം നമുക്ക് നഷ്ടം വരാണ്ട് നമുക്ക് പൈസ അല്ലെങ്കിൽ പൈസയിൽ നഷ്ടം വരാണ്ടെ നിക്കും